നമ്മുടെ നാട്ടില് ഒരുപാട് മതങ്ങളുണ്ട് അതിൽപ്പെടുന്നതാണ് ഈ ക്രിസ്തുമതം ഇസ്ലാം മതം ഹിന്ദു മതം പിന്നെ ബുദ്ധമതം യഹൂദമതം മതവിശ്വാസത്തിന്റെ ഉറവിടം തന്നെയൊരു തുറന്ന ചോദ്യമാണ് മറ്റേ വ്യക്തിഗത മരണത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹബോധം സ്വപ്നങ്ങൾ എന്നിവയുൾപ്പെടുന്ന പവിത്രമായ സാന്യമായ വിശദീകരണങ്ങൾ മതങ്ങൾക്ക് ഒണ്ട് അതിൽത്തന്നെയാണ് ചരിത്രങ്ങൾ അദ്ധ്യാനങ്ങൾ പുരാണങ്ങൾ എന്നിവയുടെയും മതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പം തന്നെ വിശുദ്ധ വിശുദ്ധ സ്ഥലങ്ങളും ഇവയിന്റെ ഉത്ഭവും പ്രപഞ്ചവും മറ്റ് പ്രതിഭാസങ്ങളും എന്നിങ്ങനെല്ലാം നമ്മളുടെ മതത്തിൽ നിന്ന് തന്നെ അതിന്റെ ഗ്രന്ഥനിന്നനെ ഗ്രന്ഥത്തിൽ തന്നെ നിന്ന് പഠിപ്പിക്കുന്നു ഓരോ മതത്തിനും അവരുടെ വിശ്വാസങ്ങളാണ് ഹിന്ദു മതത്തിനായാലും വിശ്വാ യഹൂദമതവും ബുദ്ധമതവും ഇസ്ലാം മതവും അവത് അവർക്കവരുടേതായ വിശ്വാസങ്ങളാണുള്ളത് മതത്തിലുൾപ്പെടുന്ന സേനാ സേവനങ്ങളുണ്ട് ധ്യാനം പ്രാർത്ഥന പൊതുസേവനം എന്നിങ്ങനെ എല്ലാ മതത്തിലുവുണ്ട് പൊതുസേവനവും പ്രാർത്ഥനയും അവരുടെ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർ അനുശോചിച്ച് കൊണ്ടിരിക്കുന്നത് ഇതില് പ്രധാനമായും നാല് മതങ്ങളാണുള്ളത് ഇസ്ലാം മതം ഹിന്ദുമതം ബുദ്ധമതം മതത്തില് വിശ്വാസമില്ലാത്തവര് നിരീശ്വരവാദികൾ നിരി നിരീശ്വര വാദികളാണ് അവർക്ക് സ്വന്തമായൊരു ദൈവത്തെ തന്നെ അവർ ആരാധിക്കുന്നു എല്ലാവർക്കും ഇപ്പൊഴും വിവിധ മത വിശ്വാസങ്ങളുണ്ട് എന്നാലും മതത്തിൽ നമ്മള് പ്രസ്ഥാപിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നാല് മതങ്ങളാണുള്ളത് ക്രിസ്തുമതം ഇസ്ലാമ്മതം ഹിന്ദുമതം ബുദ്ധമതം ഈ നാലെണ്ണമാണ് നമുക്ക് നമ്മുടെ നാട്ടില് ഉള്ളത് നമ്മുടെ പ്രധാന മതവിശ്വാസങ്ങളിതെല്ലാമാണ്